രാജേഷെ വിളിച്ചിട്ടുണ്ടായിരുന്നുല്ലെ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു ഞാൻ മറന്നിട്ടില്ല ഞാനതിൻ്റെ സർട്ടിഫികറ്റും കാര്യങ്ങളും അയച്ചു തരിക അതിനനേണു വന്നതു ഞാൻ മീറ്റിങ്ങിൽ പെട്ടതു കൊണ്ടു ഞാൻ അതിൻ്റെ ഇടയിലാണെനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പെട്ടെന്നു നീച്ചു വന്നതാണ് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ അതു ഡിജിലോക്കറിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അതു നേരെ ഫോർവേഡ് ചെയ്തു തരാം കേട്ടോ ഇനി എന്തുണ്ടെങ്കിലും മടിക്കണ്ട ചോദിക്കാൻ എന്തുണ്ടെ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ ഇതേ പോലെ എൻ്റൊരു ഫ്രണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തിരക്കായതു കൊണ്ടു കൊടുക്കാൻ പറ്റിയേന്നില്ല പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാൽ ഇതായത് അപ്പോഴേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടേയെന്നു പറഞ്ഞു ഇനി അങ്ങനൊരവസ്ഥ അനക് വരണ്ട അപ്പോൾ എപ്പോൾ എന്തു വേണമെങ്കിലും ചോദിച്ചോണ്ടു പ്രസൻ്റേഷൻ അടിപൊളിയായിട്ട് പോകട്ടെ അതൊക്കെ പോകട്ടെ അന്നു പുറത്തു നിന്നു കണ്ടിരുന്നു അപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ഞാൻ കുറേ പെട്ടെന്നു പോയതായിരുന്നു ഇയ്യ് എങ്ങോട്ടാണ് പോയിരുന്നത് നിൻ്റെ വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലെ എല്ലാവരോടും ഞാൻ ചോദിച്ചിരുന്നു പറി ഒരു ദിവസം അങ്ങോണ്ട് ഇറങ്ങോണ്ട് ഇനി കാണാമല്ലോ എല്ലാവരെ ഒക്കെയൊന്നു അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ എന്നൊക്കെ എന്നിട്ട് കാണാൻ വരണ്ട് എന്തായാലും കാണണം കുറേ ആയില്ലേ